കളിയെന്നു പറയുമ്പോൾ ഗേൾസിൻ്റെ ഇതിലുണ്ട് ബോയ്സിൻ്റെ ഇതിലുണ്ട് ഗേൾസ് കൂടുതലായിട്ടും കളിക്കുന്നത് ഷട്ടിൽ ബാറ്റാണ് അപ്പോളിതിപ്പോൾ രണ്ടു രണ്ട് ടീമായിട്ടായിരിക്കും അവരിരിക്കുന്നത് അവർ അടുത്തടുത്ത വീട്ടിലുള്ള പിള്ളേരുമായിട്ട് ഷട്ടിൽ കളിക്കലാണ് അപ്പോൾ ഇവിടെ മിക്ക വീട്ടിലും എല്ലാം ഇവിടുള്ള ചുറ്റിനുള്ള വാർഡുകളിൽ എപ്പോഴും ഷട്ടിൽ ബാറ്റും കോർക്കും കാണും കാരണം പെൺപിള്ളേരുള്ള വീട്ടിൽ ഷട്ടിൽ ബാറ്റും കോർക്കും കാണും അവർ സ്ഥിരമായിട്ട് ഷട്ടിൽ ബാറ്റും കളിക്കും പിന്നെ ഞാനും കളിക്കും എൻ്റെ വീട്ടിൽ നിന്ന് പിന്നെ ആൺപിള്ളേർ ഈ വാർഡിലുള്ള ആൺപിള്ളേരെല്ലാവരും കൂടി കളിക്കുന്നത് ഫുട് ബോളാണ് അവർക്ക് ഇച്ചിരിയും കൂടി ഫുട് ബോൾ ആൺകുട്ടികളാകുമ്പോൾ ഫുട് ബോളാണ് ചെറിയൊരു ക്രെയ്സ് തോന്നും അതിപ്പോൾ ചേട്ടന്മാർ കളിക്കുന്നുണ്ടായിരിക്കും അല്ലെങ്കിൽ വേറെ ഇപ്പോൾ ആ ചിലവരുടെ ആരാധന മൂത്തായിരിക്കും എന്നാൽ ആൺപിള്ളേർക്ക് ഫുട് ബോളിനോടാണ് താത്പര്യം കൂടുതൽ പിന്നേ ഇവിടെ ഫുട് എന്താ ഞങ്ങളുടെ ഓരോ ക്ലബ്ബുകളുണ്ട് ഞങ്ങളുടെ വാർഡ് ഓരോ വാർഡുകളിൽ ക്ലബുകളുണ്ട് അപ്പോൾ ഫുട് ബോളിൻ്റെ മത്സരമൊക്കെ നടത്തും ഫുട് ബോൾ കളിക്കാൻ രണ്ടു ടീമുകളും പിന്നെ ട്രോഫിയൊക്കെ മേടിച്ചു വെച്ചിട്ട് മത്സരം നടത്തും അതിനൊക്ക ഞങ്ങൾ കാണാൻ പോകും കാണാൻ പോയി നിൽക്കുമ്പോൾ ഒരു ഒരു ഒരു ജസ്റ്റൊരു വൈബ് ഇട്ടും ഒരാളെ സപ്പോട്ട് ചെയ്തു സംസാരിക്കും മനസ്സിലായോ ഒരു നമ്മുടെ ടീം ജയിക്കുമ്പോൾത്തന്നെ നമ്മൾ കളിച്ചു നമുക്ക് കളിക്കാനറിയത്തില്ലെങ്കിലും കളിച്ചില്ലെങ്കിലും അതു കണ്ടു കൊണ്ടിരിക്കുന്നതു തന്നെ രസമാണ് പിന്നെ ആ ആൺകുട്ടികൾ പെൺപിള്ളേരുമായിട്ടു കളിക്കാൻ നേരത്ത് ആൺകുട്ടികളും പെൺകുട്ടികളും നമ്മൾ ഒരുമിച്ച് കളിക്കാൻ നേരത്ത് അവർ കുടുതലും നമ്മളോടാ ഷട്ടിൽ ബാറ്റ് കളിക്കും ഇപ്പോൾ അവർക്ക് ഷ് ഷട്ടിൽ ബാറ്റ് എന്താ ചില പെബ്ൾ പെൺപിള്ളേർ ഇപ്പോൾ ആങ്ങളമാരൊക്കെ ഉണ്ടെങ്കിൽ അവ അവർ ചിലതൊക്കെ ചിലവർക്കൊക്കെ ഫുട് ബോൾ കുറച്ചൊക്കെ അറിയാമായിരിക്കും അപ്പോൾ അവർ ചിലസമയത്ത് ആൺപിള്ളേരുടെ ഫുട് ബോൾ ഇങ്ങനെ തട്ടിത്തട്ടി കളിക്കും എന്നാൽ കാണാം പിന്നേ ഏറ്റവും കൂടുതൽ ഗേൾസ് കളിക്കുന്നത് ഷട്ടിൽ ബാറ്റും ബോയ്സ് കളിക്കുന്നത് ഫുട് ബോളും ആണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം